ബൈക്ക് ഓടിക്കുമ്പോൾ നിങ്ങൾ ഞാൻ എപ്പോഴും ചെയ്യാറൂള്ള ഏറ്റവും പ്രധാന ചില സുരക്ഷാ മുൻ കരുതൽ എന്തൊക്കെയാണെന്ന് നോക്കുക ആണെങ്കിൽ ആദ്യം തന്നെ ഹെൽമറ്റ് ധരിക്കണം ഹെൽമെറ്റ് ധരിക്കുന്നതിലൂടെ എന്തെങ്കിലുമൊക്കെ ഒരു അപകടം വരികയാണെങ്കിൽ അതിന് നമ്മൾ ഹെൽമറ്റ് വഴി നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യും ഇന്നത്തെ ക്കാലത്ത് ഒട്ടനവധി ആക്സിഡന്റ് പ്രത്യേകിച്ചു ബൈക്ക് കൊണ്ട് തന്നെ നടക്കുന്നുണ്ട് പക്ഷെ ഒട്ടനവധി ആൾക്കാർ അതിൽ നിന്ന് രക്ഷപ്പെടുന്നുമുണ്ട് കാരണം ഹെൽമെറ്റ് ധരിക്കുന്നതിലൂടെ നമുക്ക് പരിക്കുകൾ പറ്റുന്നത് പ്രത്യേകിച്ചു തലയ്കൊക്കെ പരിക്കൊക്കെ പറ്റുന്നതിൽ നിന്ന് ഹെൽമറ്റ് സഹായിക്കുന്നുണ്ട് പിന്നീട് പറയുകയാണെങ്കിൽ വളരെ അധികം വേഗത കുറച്ചു തന്നെ ഓടിക്കാൻ ശ്രമിക്കും കാരണം വേഗത ഇന്നത്തെ കാലത്ത് ഒട്ടനവധി റോഡിൽ ആക്സിഡന്റ് നട ത്തുന്നുണ്ട് വേഗത കൂടും തോറും നമ്മുടെ ശ്രദ്ധയും കുറയും പിന്നെ എന്തും പെട്ടെന്ന് നടക്കും അതുകൊണ്ട് തന്നെ വേഗത കണ്ട്രോൾ ചെയ്യേണ്ടത് നമ്മുടെ ഒരു ആവശ്യമാണ് പിന്നീട് ഞാൻ നോക്കുന്നത് ആണ് ട്രാഫിക് നിയമങ്ങൾ പാലിക്കും ട്രാഫിക് നിയമങ്ങൾ പാലിക്കും എന്ന് ഉദ്ദേശിക്കുന്നത് സൈഡുകളിൽ കാണുന്ന ബോഡുകൾ നോക്കും അത് അനുസരിച്ചു തന്നെ വണ്ടി ഓടിക്കാൻ ശ്രമിക്കും അത് മാത്രമല്ല ട്രാഫിക് സിഗ്നൽസ്സ് അത് ഫോളോ ചെയ്യും അത് കൃത്യമായി തന്നെ ഫോളോ ചെയ്യും എടുത്ത് ചാടി ഒന്നും ചെയ്യാൻ നോക്കുകയില്ല പിന്നെ ബൈക്ക് ഓടിക്കുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് ബാക്കി സുരക്ഷാ കാര്യങ്ങൾ അതായത് ബാക്കി സുരക്ഷ ആ കാര്യങ്ങൾ ധരിക്കാൻ നോക്കും പിന്നെ യാത്ര ചെയ്യുമ്പം കൈയിൽ വയ്ക്കുന്ന രേഖകളെന്ന് പറയുന്നത് ആദ്യം തന്നെ ലൈസൻസ്സ് ലൈസൻസ്സ് എന്തെങ്കിലും ഒരു കാര്യത്തിന് നമുക്ക് പെട്ടു പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ചെക്കിങ്ങൊക്കെ വരികയാണെ ലൈസൻസ് ആവശ്യമാണ് സോ അതുകൊണ്ട് തന്നെ ലൈസൻസ്സ് കൈ വയ്ക്കും പിന്നെ വണ്ടിയുടെ ആർ സി കാർഡ് കാരണം ചെക്കിങ്ങൊക്കെ വരുമ്പം വണ്ടിയുടെ ആർ സി കാർഡ് വേണ്ടതാണ് പിന്നെ വണ്ടിയുടെ മറ്റു ഡീറ്റേയ്ൽസ്സ് ആവശ്യമാണ് ഇത് കൂടുാത തന്നെ ഫാസ്റ്റ് എയ്ഡ് ബോക്സൊക്കെ നമുക്ക് കൈയിൽ കരുതേണ്ട ആവശ്യമുണ്ട് പിന്നെ ബൈക്ക് ഓടിക്കുമ്പം എന്ന് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇൻറ്റിക്കേറ്റർ ഇട്ട് തിരിക്കും പിന്നെ നോക്കി അത് റോഡിൽ നോക്കിയും കണ്ടൊക്കെ ബൈക്ക് തിരിക്കാനും ഓടിക്കുവാനുമൊക്കെ ശ്രമിക്കും മറ്റു സൈഡിൽ നിന്ന് വണ്ടി വരുന്നുണ്ടോ പിന്നെ കറക്റ്റ് ആയ പാതയിലൂടെ വണ്ടി ഓടിക്കാൻ ശ്രമിക്കും പിന്നെ ഒത്തിരി അധികം ആൾക്കാരെ ബൈക്കിൽ കയറ്റാതെ ഓടിക്കുകയും ചെയ്യും അതായത് രണ്ട് പേർ വച്ചു വണ്ടി ഓടിക്കാൻ ശ്രമിക്കും അങ്ങനെയുള്ള കാര്യങ്ങളക്കെ ഞാൻ ബൈക്ക് ഓടിക്കുമ്പം ശ്രദ്ധിക്കും പിന്നെ ബൈക്ക് ഓടിക്കുമ്പം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വേഗത കാരണം വേഗത കുറച്ചാൽ തന്നെ ബൈക്കിന്റെ ഏറ്റവും വലിയ പ്രശ്നമാണ് വേഗത എന്നു പറയുന്ന കാര്യം കാരണം വേഗത പറയുമ്പോൾ ബൈക്ക് നമുക്ക് ഏത് വഴി വേണമെങ്കിലും അത് കൊണ്ടു പോകാൻ സാധിക്കും പിന്നെ ഒരു ബ്ലോക്കിലൊക്കെ കിടക്കുമ്പം ബൈക്ക് ഇടയിൽ കൂടെ ഒക്കെ കൊണ്ടു വരാൻ നോക്കുക സോ അതുകൊണ്ടൊക്കെ തന്നെ ബൈക്ക് ഓടിക്കുമ്പം ഈ കാര്യങ്ങൾ കൂടെ ശ്രദ്ധിക്കും കറക്റ്റ് ആയിട്ടുള്ള രേഖകൾ കൈയിൽ വയ്ക്കാൻ നോക്കും ഇതൊക്കെ ഞാൻ ശ്രദ്ധിക്കുന്ന കാര്യങ്ങളാണ്